ഹലോ ഒലയുടെ ഓഫീസ്സല്ലെ ഞാൻ ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരുന്നു നമുക്ക് ഫെബ്രുവരി ഇരുപതാം തീയ്യതിയിലേക്കാണ് വേണ്ടത് അപ്പം ചെറിയ വണ്ടി ഏതെങ്കിലും മതി മൂന്നാറിലോട്ട് പോവാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇരുപതാം തീയതി പോയിക്കഴിഞ്ഞാൽ ഇര്വത്തി രണ്ടാം തീയതിയെ നമ്മൾ ക്യാബ് തിരിച്ച് എത്തത്തുള്ളു അപ്പം ഡ്രൈവറ് വേണ്ട നമുക്ക് സ്വന്തമായിട്ട് റെൻ്റിന് സ്വന്തമായിട്ട് ഓടിക്കുന്ന ഡ്രൈവറുണ്ട് അപ്പം അതുകൊണ്ട് ഡ്രൈവറിൻ്റെ ആവശ്യമില്ല വണ്ടി മാത്രം മതി അപ്പം ഇത്രയും ദിവസത്തേക്ക് എത്ര രൂപയാവും റെൻട് കിലോമീറ്ററാണോ കിലോമീറ്ററിന് എത്ര രൂപയാണ് അതോ ഇങ്ങനെ മണിക്കൂറിനാണോ എങ്ങനെയാണ് അതിൻ്റെ റെൻ്റിൻ്റേയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം പിന്നെ ചെറിയ ഏതെങ്കിലും വണ്ടി മതി ഞാനും ഹസ്ബെൻടും മക്കൾ രണ്ടു പേരും മാത്രമേ ഉള്ളു അതുകൊണ്ട് വലിയ വണ്ടിയുടെ ആവശ്യമില്ല നമുക്ക് അപ്പം ചെറിയ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ആ സമയത്ത് ആ ദിവസം അവൈലബിളാണൊ ബുക്കിങ്ങുണ്ടോ വണ്ടിയുണ്ടോ നമുക്ക് തരാൻ വേണ്ടിയിട്ട് അ പിന്നെ ഈ കിലോമീറ്ററിൻ്റെ കാര്യങ്ങളൊക്കെ ക്കെ എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങൾക്ക് ക്ലിയറായിട്ട് അപ്പോൾ അതാകുമ്പോൾ ഒന്നും കൂടെ നമുക്ക് നോക്കി എടുക്കാൻ എളുപ്പം ഉണ്ടല്ലോ അപ്പോൾ ഈ ഫെബ്രുവരി ഇരുപതാം തീയതി തന്നെ വണ്ടി അവൈലബിലാണോ എന്നൊന്ന് പറയാമോ ഒന്ന് ചെക്ക് ചെയ്ത് പറയാമോ പോവാൻ വേണ്ടിയിട്ട് മൂന്നാർ പോവാൻ വേണ്ടിട്ടാണ് മൂന്നാർ മാത്രമേ ഉള്ളു അവിടെ നിന്ന് വേറെ എങ്ങും പോകാനില്ല തിരിച്ച് പിന്നെ റിട്ടേൺ ഇങ്ങോട്ട് തിരിച്ച് എറണാകുളം